തീർച്ചയായും ഞങ്ങളുടെ പ്രദേശത്തെ സ്ത്രീകളുടെ പങ്ക് കാലക്രമേണ മാറിയിട്ടുണ്ട് കാരണമെന്ന് പറയുമ്പോൾ പണ്ടത്തെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ സ്ത്രീകൾ വീട്ടിൽ തന്നെ ഇരിക്കണം അല്ലെങ്കിൽ കുടുംബം നോക്കണം കുഞ്ഞുങ്ങളെ നോക്കണം വെളിയിൽ വരാൻ പാടില്ല തൊ സ്വന്തമായി ഒരു തൊഴിൽ ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നും ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇന്നത്തെ സമൂഹത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ എല്ലാ മേഖലയിലും സമൂഹത്തിലെ എല്ലാ മേഖലയിലും ഇന്ന് സ്ത്രീകൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഏതൊരു മേഖല എടുത്താലും സാമ്പത്തിക മേഖല ആയാലും ഏതൊരു മേഖല എടുത്താലും അവിടെയെല്ലാം സ്ത്രീകൾ അവരുടേതായ ഒരു കഴിവ് തെളിയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത് അതേപോലെ ഇപ്പോൾ ഒരു എലക്ഷൻ വന്നാലും എന്തൊരു കാര്യം എടുത്താലും സ്ത്രീകൾക്ക് അവരുടേതായ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ എന്ന് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വിദ്യാഭ്യാസത്തിനും മറ്റ് സ്ഥലങ്ങളിൽ യാത്രക്ക് പോകാനും എല്ലാം സ്ത്രീകൾക്ക് അവരുടേതായ ഒരു സ്വാതന്ത്ര്യം ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് മുൻപ് അതുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നത് തീർച്ചയായും എല്ലാ സ്ത്രീകൾക്കും വിദ്യാഭ്യാസത്തിനും ദൂര ദേശ യാത്രക്കുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഉണ്ട് എന്നിരുന്നാൽ കൂടിയും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ ഇപ്പോൾ ഒരുപാട് മുന്നിൽ എത്തി എല്ലാ മേഖലയിലും സ്ത്രീകൾ അവരുടേതായ സ്ഥാനം ഉറപ്പിച്ച് കഴിഞ്ഞു എങ്കിൽ കൂടിയും ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ ഒരുപാട് ദുഃഖങ്ങളും അവഗണനയും നേരിടുന്നുണ്ട് അതേപോലെ ഒരുപാട് വെല്ലുവിളികൾ ഈ ഒരു സമയത്ത് സ്ത്രീകൾ നേരിടുന്നുണ്ട് കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു സർക്കാർ ജോലി ഒഴിച്ച് മറ്റ് ജോലിക്ക് ഇപ്പോൾ സ്ഥ ഒരു സ്വകാര്യസ്ഥാപനത്തിൽ ഒരു ജോലിയാണ് സ്ത്രീകൾ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ജോലിയുടെ ഭാഗമായി സ്ത്രീക്കും പുരുഷനും ഒരു തുല്യ വേതനം ആയിരിക്കില്ല കിട്ടുന്നത് സ്ത്രീക്ക് ഒരു വേതനവും അതിൽനിന്ന് മുകളിൽ വരുന്ന ഒരു വേതനമായിരിക്കും പുരുഷന് കിട്ടുന്നത് അതേപോലെ ഉള്ള ഒരുപാട് അസമത്വങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല തീർച്ചയായും ഉണ്ട് അതേപോലെ സ്ത്രീകൾ നേരിടുന്ന അതായത് സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഭീഷണികൾ ഒരുപാടാണ് അത് വെല്ലുവിളികൾ ഒരുപാടാണ് അസമത്വങ്ങൾ ഒരുപാടാണ് അതേപോലെ സ്ത്രീകൾക്ക് സുരക്ഷ വളരെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകളുടെ സുരക്ഷ എന്ന് വെച്ചാൽ വളരെ കുറവാണ് സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷ ഇല്ലാത്ത ഒരു സമൂഹമെന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം ആ ഒരു സമൂഹമാണ് ഇന്നും നമുക്കുള്ളത്